ഞാൻ സ്റ്റൈൻലെസ്സ് സ്റ്റീലിൻ്റെ കത്തികളാണ് ഉപയോഗിക്കാറുള്ളത് കാരണം അത് തുരുമ്പടിക്കില്ല മാത്രവുമല്ല അതിന് നല്ല മൂർച്ചയുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റൈൻലെസ്സ് സ്റ്റീലിൻ്റെ കത്തികളാണ് എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുള്ളതും മറ്റുള്ളവർ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിലും അത് തന്നെയാണ് ഞാൻ പറയാറുള്ളത് ഞാൻ ഉപയോഗിക്കുന്ന കത്തി സ്റ്റൈൻലെസ്സിൻ്റെതാണ് മാത്രമല്ല അതിനെ മൂർച്ച കൂട്ടുകയോ അതിൻ്റെ മൂർച്ച പോവുകയോ ചെയ്യാറില്ല അത് വളരെ സിംപിളായിട്ട് നമുക്ക് മുറിക്കാനും പറ്റും നമ്മുടെ കയ്യിലൊന്നും പെട്ടന്ന് മുറിവും ആവില്ല അതുകൊണ്ട് സ്റ്റെയിൻലെസ്സ് സ്റ്റീലിൻ്റെ കത്തികളാണ് ഏറ്റവും നല്ലത് അത് തുരുമ്പിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം